ഹലോ നമസ്കാരം അതേ പിന്നെ കോഴിക്കോട് ടൗൺ ഏരിയലോട്ട്

അ വീട് വെക്കാനല്ലേ അതിൻ്റെ വർക്ക് റിപ്പോർട്ട്തും കഴിയില്ലേ ആ ടൗൺ ഏരിയ് അടുത്താണ് ഒരാളല്

ആ ഞാൻ സെന്റിന് ഒരു രണ്ട് ഓക്കെ ഓക്കെ ആണ് വീടുള്ള സ്ഥലങ്ങളുണ്ടോ ഞാൻ വീട് ഉണ്ടാക്കാനായിരുന്നു വീടുള്ള സ്ഥലങ്ങൾ നമുക്ക് അത്ര രീതിയിൽ ഉള്ളതാണേൽ ആ അതെ വീട് ഉള്ളതാണെങ്കിൽ വീട് ഉള്ളതാണെങ്കിലും എത്ര ചോദിക്കുന്നത്

ആ ആ ഓക്കെ പൈസ കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പാലായി ഭാഗത്താണ് എനിക്ക് ആ ഓക്കെ ഓക്കെ